നമുക്ക് ട്രക്കിംഗ് സംഘങ്ങളുമായിട്ടൊന്നും അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല നമ്മൾ കൂടുതലും സ്വയം തന്നെ ആണ് ചെയ്യുന്നത് അല്ലാതെ ചെയ്യാമെന്നു പറയുന്ന നമ്മൾ സുഹൃത്തുക്കളൊക്കെ കൂടി ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്നു പറ്റുന്ന രീതി ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു വലിയ രീതിയിലുള്ളൊരു ട്രക്കിംഗൊന്നും ഇല്ല അങ്ങനെയുള്ള സംഘങ്ങളായിട്ട് നമുക്കൊരു ബന്ധവും ഇല്ല നമ്മുടെ രീതിക്കും ആ ഇത് സാഹചര്യമനുസരിച്ചുള്ള ചെറിയ ചെറിയ ട്രക്കിംഗുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് മാത്രമേ നമ്മൾ പോകുന്നുള്ളു ഇനിയിപ്പം അടുത്തതായിട്ട് ഇപ്പം പോകാൻ ആഗ്രഹിക്കുകയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പുതിയായിട്ടുള്ളതൊന്നും തീരുമാനിച്ചിട്ടൊന്നും ഇല്ല കാത്തിരിക്കുന്ന പുതിയ ട്രക്കിംഗുകളൊന്നും ഇപ്പോൾ നിലവിൽ നമ്മുടെ പരിഗണനയിലില്ല അതൊരു എന്താ പറയുക ഇനിയിപ്പോൾ ഇപ്പം ചൂട് കൂടുതലാണ് ഇനിയിപ്പം മഴക്കാലമോ അത് കഴിഞ്ഞൊരു നോർമൽ കാലാവസ്ഥ നവംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ സമയമൊക്കെ അവുമ്പോഴത്തേക്കും ആയിരിക്കും ഇനിയിപ്പം പുതിയ ട്രക്കിംഗിനെപ്പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുകയും ഇതിനെപ്പറ്റി ഏതു മേഖലയിലേക്കാണ് പോകുന്നത് എന്നൊക്കെ ഒന്നു കണ്ടെത്തി അതൊക്കെ ചെയ്യുന്നത് അന്നരത്തേക്കിനേ ഉള്ളൂ ഇപ്പോഴും നിലവിൽ എങ്ങും പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല